നമുക്ക് ഏറ്റവും കൂടുതൽ ടി വി ആവശ്യമുള്ളത് മുതിർന്ന വീട്ടിലുള്ള മുതിർന്നവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നു വച്ചാൽ വയസ്സായിട്ടുള്ള മുതിർന്നവർക്ക് എന്താ ഉപകാരം എന്നു വച്ചു കഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരം ആവുമ്പോൾ ഒരു സീരിയൽ കാണലും അങ്ങനെ കാണാനൊക്കെ ഇരിക്കുമ്പോൾ ഒരു മനഃസമാധാനമാണ് രാത്രിയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ സീരിയൽ കാണലും എല്ലാം മറ്റ് വീട്ടിലുള്ള അമ്മമാർക്കും എല്ലാവർക്കും സീരിയൽ കാണാം അതേപോലെത്തന്നെ ഫോണുള്ള റിട്ടേഡായിട്ടുള്ള വയസ്സായവരും മുതിർന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കു ഫോണിലും കാണാം രാവിലെയൊക്കെ കുറച്ചു ഫോണിലും ആവിശ്യത്തിനു ആരെങ്കിലും വിളിക്കലും പിന്നെ അതേപോലെ ഇവർക്കു ടി വി കാണാനുമൊക്കെ സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരു മനഃസ്സുഖമൊക്കെ കിട്ടും മനഃസ്സമാധാനവും എല്ലാം കിട്ടും